മലയാളം സംസാരിക്കാത്ത ആളുകളുമായി ആശയവിനിമയം നടത്താൻ വളരേയധികം ഇപ്പോൾ ഓപ്ഷനുകൾ നമ്മുടെ മലയാളികൾക്ക് വളരെയധികം ഓപ്ഷനുകൾ ഉണ്ടായിട്ടുണ്ട് ഹിന്ദി ഇംഗ്ലീഷാണ് കൂടുതൽ ഓപ്ഷന് ഇപ്പോൾ കൂടുതൽ കേരളത്തിൽ ജോലി ചെയ്യുന്നത് തന്നെ ഇപ്പം ബംഗാളികളും ആസ്സാംക്കാർ ജാർഘണ്ഡുകാർ അങ്ങനെ അവർ ഹിന്ദിയും ആസ്സാം അപ്പോൾ നമുക്കത് പറയാൻ ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന ഇംഗ്ലീഷും ഹിന്ദിയുമാണ് അപ്പോൾ ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷും അത് എല്ലാം വഴി നമ്മൾ ഫോൺ വഴിയും നമുക്ക് ഇപ്പോൾ ക്ലാസുകളായിട്ടെല്ലാം നമുക്ക് ലഭ്യമാണിപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇംഗ്ലീഷ് പറയുകയും ഹിന്ദി പഠിക്കുകയും ഇംഗ്ലീഷ് പഠിക്കുകയോ അതാണ് പറയുന്നത് കൂടുതൽ നമ്മൾ മലയാളം സംസാരിക്കാത്ത ആളുകളോട് ആശയവിനിമയം നടത്തുന്നത് കൂടുതൽ ഇംഗ്ലീഷും ഹിന്ദിയുമാണിപ്പോൾ കൂടുതലും പ്രത്യേകിച്ച് അതിലും ഹിന്ദി അറിയാത്തവര് കൂടുതലും മലയാളം നമ്മൾ ഇംഗ്ലീഷാണ് കൂടുതൾ യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഇപ്പോൾ കോമൺ ആണ് എല്ലാവർക്കും ഇപ്പോൾ ഇംഗ്ലീഷ് അറിയാം അതിനുള്ള പദ്ധതികളും എല്ലാം പഠിക്കാനുള്ള രീതിയിൽ ഉള്ള എല്ലാം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇംഗ്ലീഷാണ് ഇപ്പോൾ എല്ലാവർക്കും കൊച്ചു കുട്ടികൾ തുടങ്ങി ഇപ്പോൾ ഹൈടെക്ക് സ്കൂളുകളും ഇപ്പോൾ ആ സ്കൂളിലെ പഠിത്തവും ഇംഗ്ലീഷിനുവേണ്ടിത്തന്നെ ഒരു സബ്ജക്റ്റ് തന്നെ എല്ലാം മാറ്റിവച്ചിട്ടുണ്ട് അപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ കൂടുതൽ നമ്മൾ അറിയാനും കൂടുതലും മലയാളം അറിയാത്ത ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കും ആശയവിനിയത്തിന് കൂടുതൽ നമ്മൾ ഇംഗ്ലീഷാണ് ഇപ്പോൾ ഇംഗ്ലീഷ് വലിയൊരു മുഖ്യ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മുഖ്യ ഘടകമായതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഇംഗ്ലീഷ് എല്ലാവരും പറയുകയും എല്ലാവർക്കും പഴയതുപോലെയല്ല ഒരു പത്തു പതിനഞ്ച് വർഷം മുമ്പുള്ളത് ആളുകളുടെ ഇപ്പോൾ ജീവിതരീതിയല്ല ഇപ്പോഴുള്ള കേരളത്തിലാണെങ്കിൽത്തന്നെ ഇന്ത്യയിലാണെങ്കിൽ തന്നെ എല്ലാവരും ഇംഗ്ലീഷുമായിട്ട് വലിയ ബന്ധം പുലർത്തുന്നുണ്ട് ഇംഗ്ലീഷ് പറയാനും അതിനെക്കുറിച്ചും കൂടുതൽ അറിയാനും ആൾക്കാർ സാധിക്കുന്നും ഉണ്ട് ഇംഗ്ലീഷാണ് മലയാളം സംസാരിക്കാത്തതുകൊണ്ട് കൂടുതൽ ആശയവിനിയം നടത്തുന്നത് മലയാളിക്ക് പ്രത്യേകിച്ച് ഇംഗ്ലീഷാണ് കൂടുതൽ പിന്നെ ഹിന്ദി വന്നു ഹിന്ദി ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദി ആൾക്കാരാണ് ജോലിക്കൊക്കെ വരുന്നുണ്ട് ഹിന്ദിയും അവർ കൂടുതൽ പറയാനും പഠിക്കാനും ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും ഇംഗ്ലീഷിന് വലിയൊരു ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട് കാരണം ഇംഗ്ലീഷാണ് കൂടുതൽ എല്ലാവർക്കും അറിയാവുന്നതുതന്നെ വിദേശത്തു നിന്ന് വന്നാലും കൂടുതൽ അവർക്കറിയുന്നത് ഹിന്ദിയേക്കാട്ടും കൂടുതൽ വിദേശത്തുള്ള ഇന്ത്യയുടെ പുറത്തുള്ള ആളുകൾ ഇത് ഇംഗ്ലീഷാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് അപ്പോൾ ഇംഗ്ലീഷാണ് കൂടുതൽ നമ്മൾ മലയാളികൾ പറയുന്നതും അതുമായിട്ടാണ് ആശയവിനിമയം നമ്മൾ മലയാളം അറിയാത്ത ആൾക്കാരുമായിട്ട് നമ്മൾ നടത്തി ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രമാണെങ്കിൽത്തന്നെ പുതിയൊരു അറിയത്തില്ലാത്തൊരു ആൾക്കാർ വഴി ചോദിക്കുന്നതും അതുമെല്ലാം നമ്മളാദ്യം തന്നെ വേറൊരു രാജ്യത്തുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് നമ്മൾ സംസാരിക്കുമ്പം തന്നെ നമ്മളാദ്യം ഇംഗ്ലീഷാണ് പറയുന്നത് അവർക്ക് നമുക്കറിയാം കോമണായിട്ട് അവർക്ക് ഇംഗ്ലീഷേ അറിയത്തുള്ളൂ നമുക്കും ഇംഗ്ലീഷിലൂടെ പറഞ്ഞാലെ അത് അവർക്ക് മനസ്സിലാകത്തുള്ളുയെന്ന് പറയാം കാരണം മലയാളം പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല അതുകൊണ്ടുതന്നെ നമ്മൾ തീർച്ചായിട്ടും ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കുന്നത് ഹിന്ദിക്കാരാവുമ്പോൾ ഹിന്ദി നമ്മൾ കൂടുതൽ അവരോട് പറയുന്നു ഹിന്ദി ആവുമ്പോൾ അറിയുന്നവർ ഹിന്ദി പറയുന്നു ഇല്ലെങ്കിൽ അറിയത്തില്ലാത്തവർ ഇംഗ്ലീഷ് തന്നെ എല്ലാവരും കോമണായിട്ട് ഇംഗ്ലീഷാണ് പറയുന്നത് ഇംഗ്ലീഷ് തന്നെയാണ് എല്ലാവർക്കും ഇപ്പം പറയാനും സാധ്യത പറയാനും എളുപ്പമെല്ലാം ഇംഗ്ലീഷ് തന്നെയാണ് ഇംഗ്ലീഷ് നമ്മുടെ ഇപ്പോൾ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ശരിയായി നോക്കുമ്പോൾ പഴയ ഒരു ആൾക്കാരെക്കാട്ടിയും കൂടുതൽ ഇപ്പോൾ ഇംഗ്ലീഷ് എല്ലാവരും ഇപ്പോഴുള്ള ജനറേഷനെല്ലാം ഇംഗ്ലീഷാണെളുപ്പം ഇംഗ്ലീഷ് അപ്പോൾ എല്ലാവരും തിരഞ്ഞെടുക്കുന്നത് ഇപ്പോൾ ഒരു ജോലിക്ക് സാധ്യതയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഇംഗ്ലീഷ് കൂടുതലും അറിയണം ഇംഗ്ലീഷ് അറിയാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മലയാളം സംസാരം ഉള്ള ആശയവിനിയമം നടത്തുന്ന തന്നെ മലയാളിക്ക് പ്രത്യേകിച്ചും ഇംഗ്ലീഷ് തന്നെയാണ് ഇംഗ്ലീഷാണ് ഏറ്റവും കൂടുതൽ ഫലപ്രദതമായൊരു ഓപ്ഷനും കൂടെ